ആ പറഞ്ഞോളൂ

സീ ഫുഡും കാര്യങ്ങളൊക്കെയാ ആ അപ്പോൾ സീ ഫുഡ് കിട്ടുന്നതെന്നു വെച്ചു കഴിഞ്ഞാല് നമുക്ക് കോഴിക്കോട് തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മള് സീ പാർക്കിൾ എന്നു പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ് ഉണ്ട് നമുക്കവിടെ നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉണ്ട് ഉണ്ട് പിന്നെ സീബേ എന്നു പറഞ്ഞിട്ടൊരു സീ ഫുഡ് ഉണ്ട് അത് വേറെ ഒരു റെസ്റ്റോറൻറ് ആണ് സീബേ എന്നു പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ് അവിടെ മെയിനായിട്ട് വരുന്നത് ആ അതെയതെ അവിടെ സീ ഫുഡ് മാത്രമാണ് അതായത് നമ്മളൊരു കള്ളിയാട്ടു പറമ്പു എന്നു പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കോഴിക്കോട് അപ്പം അവിടെ സീ ഫുഡ് മാത്രമായിട്ട് കൊടുക്കുന്നൊരു സ്ഥലമാണ് വേറെ വേറെ ഐറ്റംസ് ഒന്നുമുണ്ടാവില്ല സീ ഫുഡും അതിൻ്റെ ആ ഫിഷ് മാത്രമാണ് അതായത് സീ ഫുഡില് വരുന്നതെന്നുപറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കണവയുണ്ടാവും മത്തിയിണ്ടാവും അയലയുണ്ടാവും പിന്നെ ആ എല്ലാം അതെല്ലാം സീ ഫുഡില് വരുന്നതു തന്നെയാണ് അതൊക്കെ ആ അതിനകത്തു തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അതായത് കടലിൽ നിന്ന് കിട്ടുന്ന ഏതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ആ അതെല്ലാം ഇവിടെ വരുന്ന ഐറ്റംസാണ് ആ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളതുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും

ഓ ചെയ്തു തരാൻ കഴിയും കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ആ എത്തുവൊള്ളല്ലേ ഓക്കെ ആ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് അല്ലാണ്ട് വലിയ വലിയ റെസ്റ്റോറൻറ് ഒഴിവാക്കിയിട്ട് മെസ്സും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഷാപ്പ് അങ്ങനത്തെ ഇതൊക്കെ വേണോ ക്വാളിറ്റിയുള്ളത് മതിയല്ലേ ചൂസ് ചെയ്യാം അല്ലേ നമുക്കെന്നു പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഹോട്ടലിനെക്കാട്ടും നല്ലതെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധാ മെസ്സും ഷാപ്പൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ആമ്പിയൻസും ഉണ്ടാവും നമുക്കിങ്ങനെ ഈ ഒരു പുഴ സൈഡിലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു ഹട്ടും കാര്യങ്ങളൊക്കെ മറ്റേത് നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഷാപ്പ് മെസ്സ് അങ്ങനത്തെ ഉള്ളതായിരിക്കും അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതെയതെ ആ ആ ഓക്കെ ഞാനെന്തായാലും ഞാനിതിൻ്റെ ബ്രോഷർ ഞാൻ അയച്ചുതരാം ഏതൊക്കെ ഇത് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഞാന് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും ഞാനിട്ടു തരാം

ഓക്കെ ഓക്കെ ഓക്കെ സർ